പണ്ടുള്ള കാലങ്ങളിൽ ഓല മെടഞ്ഞ വീടുകളും തറ ചാണാൻ പൂശിയ വീടുകളും ആയിരുന്നു കൂടുതലും കാണാൻ സാധിച്ചിരുന്നത് അത് നല്ല ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ വീടിൻ്റെ മേൽക്കൂര പൊളിഞ്ഞു പോവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കാലാവസ്ഥ വന്യജീവി ആക്രമണം എന്നിവയിലൂടെ പല പണ്ടുള്ള വീടുകളും നശിച്ചു പോയിരുന്നു അതിനാൽ ഇപ്പോഴുള്ള കാലാവസ്ഥ ഒക്കെ വീട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നവിധം കൂടുതൽ നല്ല ഉറപ്പുള്ള സിമന്റും റൂഫ് ചെയ്ത വീടുകളും അതുപോലുള്ള നല്ല വീടുകൾ ആണ് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത് ഒരു വീടു കെട്ടുമ്പോൾ അവിടുത്തെ കാലാവസ്ഥ പിന്നെ സ്ഥലം കുടുംബാംഗങ്ങളുടെ എണ്ണം പ്രത്യേകത പ്രത്യേക ആവശ്യങ്ങൾ എല്ലാം പരിഗണിച്ചുകൊണ്ട് നല്ല ഒരു വീട് വേണം വെക്കാൻ ഉള്ളത് ടോയ്ലെറ്റ് അടുക്കള അടുക്കള എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ സാധിക്കണം ഘർകുൽ യോജനയെക്കുറിച്ച് എനിക്ക് അറിയാം അത് ഒരു വീട് വെക്കാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് സമീപ വർഷങ്ങളിൽ അത് എങ്ങനെ മാറിയിരിക്കുന്നു എന്നു ചോദിച്ചാൽ ആദ്യം ഒക്കെ എല്ലാവരും പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ചെറിയ ചെറിയ കട്ടകൾ കൊണ്ടും ഓലമേഞ്ഞ വീട് അത് മാത്രമല്ല ചാണോൻ പൂശിയ തറ അങ്ങനെ ഉള്ള വീടുകളിൽ താമസിച്ചതിനാൽ പണ്ടത്തെ ആൾക്കാർക്ക് വലിയ രോഗം അസുഖം അങ്ങനെയായിട്ട് ഒന്നും ഇല്ലായിരുന്നു അതുപോലെയല്ല ഇപ്രാവശ്യം ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ വീടുകളിൽ ടൈൽ ടൈൽസ് ഇട്ട വീടുകളും മണ്ട പൂശിയ വീട് പിന്നെ പെയിന്റ് അടിച്ച വീടുകൾ അതിനാൽ കുറേ കെമിക്കൽ ഉള്ളതുകൊണ്ട് ചില പല ആൾക്കാർക്കും എന്താ അസുഖങ്ങൾ കാണപ്പെടുന്നു പഷേ ഇപ്പോഴത്തെ കാലാവസ്ഥയുമായി യോജിക്കുന്ന തരം വീടുകളാണ് ഇപ്പോൾ കൂടുതൽ ആളുകളും ഉണ്ടാക്കിയെടുക്കുന്നത് അതിനാൽ നല്ല കാറ്റു വന്നാൽ പോലും ഇപ്പോൾ വീടുകൾക്ക് വലിയ പ്രശ്നം ഒന്നും ഉണ്ടാവാറില്ല പണ്ടുകാലങ്ങളിൽ ആണെങ്കിൽ മേൽക്കൂര പറന്നു പോവുകയും വീട് ഇടിഞ്ഞു വീഴുകയും ഉള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് അങ്ങനെ കാണാൻ സാധ്യമല്ല